ഹായ് ചേട്ടാ ഇത് സ്വിഗ്ഗിയിൽ നിന്നല്ലെ എന്റെ പേര് ഗൗരി എന്നാണ് ഞാന് കുറച്ച് മുന്നെ സ്വിഗ്ഗിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ഞാന് ഫുഡ് ഓർഡറ് ചെയ്തത സമയത്ത് ഞാന് കൊടുത്ത അഡ്രസ്സ് മുള്ളിയൂര്ക്കരയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് ആ വീടിന്റെ പേര് കൃഷ്ണാഞ്ജലി എന്നാണ് പക്ഷെ എനിക്ക് ഫുഡ് വേണ്ടത് പള്ളിമൂല വിമല കോളേജ് ഹോസ്റ്റലിലോട്ടാണ് പള്ളിമൂലയിലാണ് ഇതുള്ളത് സംഭവം എന്താ ണെന്ന് വച്ച് കഴിഞ്ഞാൽ എന്റെ വീടാണ് മുള്ളിയൂര്ക്കരയിൽ ഉള്ളത് ഞാൻ അറിയാതെ ഫുഡ് ഞാന് വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ അഡ്രസ് ആണ് കൊടുക്കാറ് അപ്പം അറിയാതെ മാറി കൊടുത്തതാണ് അഡ്രസ്സ് ഇപ്പോൾ ഫുഡ് അവിടേക്ക് പോയിക്കോട്ടെ എന്ന് വച്ചാലും അത് കഴിക്കാൻ ആരുമില്ല അവിടെ പിന്നെ നല്ല വിശന്നിട്ട് ഓർഡർ ചെയ്തതാണ് അതുകൊണ്ട് എങ്ങനെ എങ്കിലും ഇങ്ങോട്ട് ആക്കിത്തരാന് പറ്റ്ഞ്ഞാ എൻ്റെ അഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്ത് തരാന് പറ്റുമോ അറിയാതെ പറ്റിയതാണ് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാന് പറഞ്ഞിട്ട് പറ്റിയതാണ് എങ്ങനെ എങ്കിലുമൊന്ന് ശരിയാക്കി തരാന് പറ്റുമെങ്കിൽ ഇതിന് ഇപ്പം എക്സ്ട്രാ പൈസ ആയിട്ടുണ്ടാവും അങ്ങോട്ട് ട്രാവലിങ്ങിന് പൈസ പോയിട്ടുണ്ടാവും എന്നറിയാം അത് കോമ്പന്സേറ്റ് ചെയ്യാന് വേണ്ടിയിട്ട് എത്ര പൈസ വേണമെങ്കിലും തരാന് റെഡി ആണ് ഇതെങ്ങനെ എങ്കിലും എത്തിക്കാന് പറ്റുമോ എക്സ്ട്രാ എത്ര വേണമെങ്കിലും ഡെലിവറി ചാര്ജിന്റെ കൂടെയൊ ജീപെ ആയിട്ടോ കയ്യിൽ തരാനാണെങ്കിലോ എങ്ങനാച്ചാ ഞാൻ ഓക്കെ ആണ് ഇതെങ്ങനെ എങ്കിലും എത്തിച്ച് തരാന് പറ്റുമോ ഞാന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഫുഡ് എന്താണെന്ന് വച്ച് കഴിഞ്ഞാൽ ശെസ്വാന് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും പനീറും പിന്നെ ഒരു ഐസ്ക്രീമും പിന്നെ ഒരു ഷേക്കുമാണ് ഇത് എങ്ങനെ എങ്കിലും ശരിയാക്കി ഒന്ന് തരാന് പറ്റി കഴിഞ്ഞാൽ ചേട്ടന് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും നല്ല വിശന്ന് കൊണ്ടിരിക്കുവാണ് ഞാന് മാത്രമല്ല ഉള്ളത് ഇവിടെ എന്റെ കൂടെ കുറേ ഫ്രണ്ട്സുമുണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ നേരമായിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു പക്ഷെ ഇപ്പം ഈ അഡ്രസ്സ് മാറിയിട്ടാണ് കൊടുത്തെ എന്നുള്ള കാര്യം ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് ഇവരെടുത്ത് പറഞ്ഞ സമയത്ത് ഇവർ ഫസ്റ്റ് പറഞ്ഞത് ഈ ചേട്ടനെ ഒന്ന് വിളിച്ച് നോക്കി നോക്കുക ചേട്ടൻ എന്തെങ്കിലും വഴി ചെയ്ത് തരുമോ അത് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും പൈസ ഷെയറിട്ടിട്ട് ആയാലും കോമ്പന്സേറ്റ് ചെയ്യാന് റെഡി ആണ് അതുകൊണ്ട് എങ്ങനെ എങ്കിലും ഇത് ഇത് ഒന്ന് എത്തിക്കാന് നോക്കി നോക്കുമോ പറഞ്ഞില്ലെ എത്ര പൈസ വേണമെങ്കിലും ചാര്ജ് ചെയ്യാന് റെഡി ആണ് തരാന് റെഡി ആണ് അതിനൊന്നും ഒരു കുഴപ്പമില്ല ചേട്ടന് എപ്പോഴാണ് ഇവിടേക്ക് എത്താന് പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ലേറ്റ് ആയാലും പ്രശ്നമില്ല ഞങ്ങൾ എപ്പം വന്നാലും വന്നാലും ഞങ്ങൾ ഇവിടെ വാങ്ങാന് വേണ്ടിയിട്ട് ആള്ക്കാരും ഉണ്ടാവും പറഞ്ഞത് പോലെ കൈയ്യിലും പൈസ തരാം വേണമെങ്കിൽ അല്ലെങ്കില് ജീപ്പെ ആക്കിയിട്ടും തരാം അതൊക്കെ ചേട്ടൻ്റെ ഇഷ്ടം ഇതൊന്ന് ശരിയാക്കി ഒന്ന് തരാന് നോക്കണെ